ഹലോ ഹലോ ഗുഡ് മോർണിംഗ് മാം ഞാനീ മാലയൊന്ന് പണയം വെക്കാൻ വേണ്ടി വന്നതാരുന്നു ഈ മാലയൊരു നാല് പവനുണ്ട്

ആ മാം എനിക്ക് ആ

ഇല്ല എനിക്ക് ഗോൾഡ് ലോൺ തന്നെ മതിയാകും പക്ഷേ എന്തെങ്കിലും കുറച്ചുകൂടി ക്യാഷ് കൂടുതൽ കിട്ടീയിരുന്നെങ്കില് അതുവെച്ച് എനിക്ക് കുറച്ച് അത്യാവശ്യമുണ്ടാരുന്നു അപ്പോൾ അതിനുവേണ്ടീട്ട്

ആ ആയിക്കോട്ടെ മാം ആണല്ലേ ആ

ആണല്ലേ അപ്പോൾ ഈ കാർഷിക ലോണിലോക്കെ നമ്മള് അപേക്ഷിക്കുകയാണെങ്കില് അതിനിപ്പോൾ എന്താ ചെയ്യണ്ടേ

ആ അപ്പോൾ അവിടുന്ന് തന്നെ ചെയ്തു തരുവായിരിക്കും അല്ലേ ആ അപ്പോൾ അതിൻ്റെ അടവും കാര്യങ്ങളും ഒക്കെയോ ആ ഓക്കെ മാം ആ ഓക്കെ ഓക്കെ